പ്രത്യേക സാഹചര്യത്തിൽ പരസ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ആൽക്കാരുടീനിൻ്റെ ഇടയിൽ നല്ല രീതിയിലുള്ള സ്വാധീനം ചെലുത്തും കാരണമെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം കാ ഇപ്പോൾ നമ്മൾ എണീക്കുന്നത് തൊട്ട് മുതൽ നമ്മൾ വൈകുന്നേരം കിടക്കുന്നത് വരെ എല്ലാറ്റിലും പരസ്യവും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ടൂത്ത് പെയിസ്റ്റ് ബ്രഷ് എ ടു ഇസെഡ് സാധനങ്ങൾ പരസ്യം നവു കണ്ടിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും വാങ്ങുക നമ്മളിപ്പോൾ ടി വി തുറന്നു കഴിഞ്ഞാൽ അതിൽ വരെ പാ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഒരു സിനിമ ഇപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തു ഒരു സിനിമ ആകെ ഒരു രണ്ടര മണിക്കൂർ ആ ടൈമേ ഉണ്ടാകുകയുള്ളൂ ബാക്കിയുള്ളതെല്ലാം പരസ്യങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിരിക്കും അപ്പോൾ അത് കൂടുതലായിട്ടും എന്താ പറയുക ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പം നല്ല രീതിയിൽ അവർ പരസ്യങ്ങൾ ഇടുമ്പോൾ ആൾക്കാരതിനനുസരിച്ച് വാങ്ങുകയും കാര്യങ്ങളൊക്കെ ചെയ്യും അതിൻ്റെ നമ്പറെല്ലാം നോട്ട് ചെയ്തിട്ട് അവർ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടൊക്കെ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരസ്യം കൂടുതലായിട്ടും ഇറക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാണ്ടുള്ള പരസ്യങ്ങൾന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമ്മൾ നാട്ടുകളിൽ നാടുകളിലേക്കൊക്കെ ഇറങ്ങി ചെന്നിട്ട് പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെയും വേണമെങ്കിൽ പരസ്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും